ഇന്ത്യയിലെ മുക്കാൽ ഭാഗത്തോളം കുടുംബംങ്ങളും ഗ്രാമീണ വരുമാനത്തെയാണ് ആശ്രയിക്കുന്നത് ഇന്ത്യയിലെ ദരിദ്രരരിൽ ഭൂരിഭാഗവും ഏകദേശം എഴുന്നൂറ്റി എഴുപത് ദശലക്ഷം ആളുകൾ അല്ലെങ്കിൽ ഏകദേശം എഴുപത് ശതമാനം ഗ്രാമ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷാ ധാന്യ വിളകൾ ഉൽപാദിപ്പിക്കുന്നതിന് ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വർദ്ധിച്ച് വരുന്ന വരുമാനത്തോട് കൂടിയ വർദ്ധിച്ച് വരുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പഴങ്ങൾ പച്ചക്കറികൾ പാൽ എന്നിവയുടെ ഉൽപാദനവും വർദ്ധിക്കുന്നു ഈ ഒരു വ്യാവസായിക സേവന മേഖലകളുടെ ഉയർന്ന വളർച്ചാ നിരക്ക് കാരണം ഇന്ത്യയുടെ സമ്പത് വ്യവസ്ഥയിലെ കാർഷിക വിഹിതം ക്രമേണ ഫിഫ്റ്റീൻ പേർസെൻറ്റേജിൽ താഴെ കുറഞ്ഞെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹ്യ ഘടനയിൽ ഈ മേഖലയിൽ പ്രാധാന്യം വളരെ അതീതമാണ് ഒന്നാമതായി ഇന്ത്യയിൽ മുക്കാൽ ഭാഗത്തോളം കുടുംബങ്ങളും ഗ്രാമീണ വരുമാനത്തെയാണ് ആശ്രയിക്കുന്നത് പിന്നെ പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ഭൂരിഭാഗം ദരിദ്രരും ഗ്രാമ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് പിന്നെ മുന്നാമത്തെ ഒരു കാര്യം ഇന്ത്യയിലെ ഭക്ഷ്യ സുരക്ഷാ ധാന്യ വിളകൾ ഉൽപാദിപ്പിക്കുന്നത് ആശ്രയിച്ചിരിക്കുന്നു അവരുടെ ആ ഒരു ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പഴങ്ങളും പച്ചക്കറികളും പാലൊക്കെ എന്നിവയുടെ ഉൽപാദനം അതിനനുസരിച്ച് വർദ്ധിപ്പിക്കണം അങ്ങനെ ചെയ്യുന്നത് ഉൽപാദനപരവും മത മത്സരപരവും വൈവിധ്യ പൂർണമായ സുസ്ഥിര പരമായ ഒരു കാർഷിക മേഖല ത്വരിത ഗതിയിൽ ഉയർന്നു വരേണ്ടത് ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യ എന്നുപറയുന്നത് ഒരു കാ ആഗോള കാർഷിക ശക്തി കേന്ദ്രമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാൽ പയർ വർഗങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയുടെ ഒരു ഉൽപാദന രാജ്യമാണിത് അതുപോലെ തന്നെ ഏറ്റവും വലിയ കന്നുകാലി കന്നുകാലി കൂട്ടം എരുമകൾ പിന്നെ ഗോതമ്പ് അരി പരുത്തി എന്നിവയ്ക്ക് കീഴിലുള്ള ഏറ്റവും വലിയ പ്രദേശവുമുണ്ട് അരി ഗോതമ്പ് പരുത്തി കരിമ്പ് വളർത്തു മത്സ്യം ചെമ്മരിയാട് ആട് മാംസം പഴങ്ങൾ പച്ചക്കറികൾ തേയില എന്നിവയുടെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇത് രാജ്യത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഹെക്ടറിൽ കൃഷിയുണ്ട് അതിൽ അറുപത്തി മൂന്ന് ശതമാനം മഴയെ ആശ്രയിച്ചാണ് ഉള്ളത് മൂപ്പത്തി ഏഴ് ശതമാനം ജലസേചനമാണ് കൂടാതെ ഇന്ത്യയുടെ ഏകദേശം അറുപത്തി അഞ്ച് മീറ്റർ ഹെക്ടറോളം വനങ്ങൾ വ്യാപിച്ച് കിടക്കുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഒത്തിരി മില്ലുകളിൽ ഗ്രാമീണരുടെ ആ ഒര് ഗ്രാമീണ സമുദായത്തിലെ കാർഷികത്തിന് ഒത്തിരി വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അവർക്ക് അതിനുള്ള പണം ഇല്ല എന്നുള്ളതു തന്നെയാണ് മിക്കതും പിന്നെ അതുപൊലെ സ്ഥലം കൃഷി ഇറക്കാനുള്ള സ്ഥലം മിക്കതും വളരെ കുറച്ച് ആൾക്കാരുടെ കീഴിൽ ഒരു മുതലാളികളുണ്ടാവും ഇപ്പോൾ പാട്ടത്തിന് എടുക്കാൻ എടുക്കണം പാട്ടത്തിന് എടുക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള അതിന് ആവശ്യമായിട്ടുള്ള കാശ് വേണം കാശിന് ഇപ്പോൾ ലോണ് അപേക്ഷിച്ചു കാശ് കിട്ടി നമ്മൾ കൃഷി ഇറക്കുക ആണെങ്കിൽ മഴയെ കുറച്ച് മഴ കുറയുകയോ വെയിൽ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെ ഒരു ലാഭം ധന ലാഭം ധാന്യ ലാഭം അവർക്ക് കിട്ടേണ്ട വിളവെടുപ്പ് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആകും ഒരു വീ പല തരത്തിലുള്ള കീട കീടങ്ങളുടെ അറ്റാക്കും മഴയും വെയിലും ഒക്കെ പല അതിൽ പ്രതികൂലമായിട്ട് ബാധിക്കുക ബാധിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഗ്രാമീണ ഒരു കൃഷിയെ വളരെ വേസ്റ്റ് ആയിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും അങ്ങനെ വരുമ്പം അവർക്ക് ഈ ലോണെടുത്തത് തിരിച്ചടക്കാൻ പറ്റാതെ വരും അതുപോലെ തന്നെ ഇപ്പം കൃഷി വിജയിച്ചാലും വിളയെടുത്താലും അതിനിടയിലേക്ക് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇടനിലക്കാരുടെ കടന്നു കയറ്റവും ഉണ്ടാകും അങ്ങനെ വരുമ്പം ഇവരുടെ കയ്യിൽ നിന്നും ഒന്നും രണ്ടും രൂപയ്ക്ക് മേടിക്കുന്ന കിലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിന്ന് അത് പത്ത് രൂപയ്ക്ക് പിന്നെ കൻപനി ബാക്കി ഇരുപത് രൂപയ്ക്ക് അങ്ങനെ വലിയ വലിയ രൂപയെ മൂല്യത്തിൽ മാർക്കറ്റിൽ ഇറക്കും പക്ഷെ കർഷകർക്ക് അതിൻ്റെ യാതൊരു തരത്തിലുള്ള ബെനഫിറ്റും ലഭിക്കുന്നില്ല അവർക്കായിട്ട് സ്പെഷലായിട്ട് ഒരു പെൻഷൻ സ്കീമോ അങ്ങനെ ഒത്തിരി സ്കീമുകൾ ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാനോ അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നോ അവർക്ക് മാന്യമായ രീതിയിലേക്ക് അത് ഉപയോഗിക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഒരു പ്രികോഷൻസൊ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കാർഷികമായി ആത്മഹത്യകളും വളരേ കൂടുതലാണ് പിന്നേ നമ്മൾ കൃഷിയും ഒരു നല്ല ഒരു തൊഴിലാണെന്ന് കരുതിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാമീണ ദാരിദ്ര്യം കുറക്കാനും അവരുടെ ഗ്രാമത്തിലെ ഒരു കാർഷിക വ്യാവസായത്തിനെ ഇംപ്രൂവ് ചെയ്യാനുമൊക്കെ നമുക്ക് പറ്റും പിന്നെ പറയുന്നത് പുതിയ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ അവർക്ക് അതിനുള്ളത് സ്പോൺസറിങ് വഴിയോ ഗ ഗവണ്മെൻറ്റ് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിൽ അത് പ്രൊവൈഡ് ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള ആ ഒരൂ നോളജ് അവർക്ക് കൊടുക്കണം പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും ദീർഘ കാല ഫണ്ടിങ്ങ് പ്രായമായ ഗവേഷകരെ മാറ്റി സ്ഥാപിക്കാത്തത് അല്ലെങ്കിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കുള്ള വിശാലമായ പ്രവേശനം എന്നിവ കാരണം ഈ സേവനങ്ങളൊക്കെ കാലക്രമേണ കുറഞ്ഞ് വരികയാണ് കാ എത്രയൊക്കെ പറഞ്ഞാലും കാര്യമായിട്ടുള്ള ഇതൊന്നും ഇപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് കൊടുത്താലും അത് യൂസ്ഫുൾ ആയിട്ട് വരുന്നില്ല അതുപൊലെ ജലസേചനം കൈകാര്യം ചെയ്യാനുള്ള മോഡേൺ ടെക്നോളജി അവർക്ക് പറഞ്ഞ് കൊടുക്കുക പിന്നേ കീടനാശിനി കീടങ്ങളുടെ അറ്റാക്കുണ്ടാകുമ്പോൾ അത് എങ്ങനെ പ്രിവെൻ്റ് ചെയ്യണം വരാതെ എങ്ങനെ നോക്കണം വന്നാൽ എങ്ങനെ പ്രിവെൻ്റ് ചെയ്യണം കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ എല്ലാം അഡ്വാൻസ് ടെക്നോളജിയാണ് ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായാലും കീടങ്ങളുടെ അറ്റാക്ക് ഉണ്ടെങ്കിലും വിളവ് കുറച്ച് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് ഹാൻഡ്ൽ ചെയ്യണമെന്ന് അവർക്ക് വളരെ ടെക്നോളജി പരമായിട്ട് സാങ്കേതിക പരമായിട്ട് നല്ല അറിവുണ്ട് അത്തരത്തിലുള്ള ക്ലാസ് കൊടുക്കുക അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക കോൺഫിഡെൻസ് കൊടുക്കുക കൂടുതൽ കൂടുതൽ സ്കീമുകൾ സർക്കാറുടെ ഭാഗത്ത് നിന്ന് കൊണ്ടു വരിക അവരേ അവരെ അതിന് എജ്യുക്കേറ്റ് ചെയ്യുക അവരും ഈ നമുക്ക് അന്നം തരുന്ന അവരും നല്ലൊരു നമ്മുടെ അന്നം തരുന്ന നമ്മുടെ മാ ദൈവം അതാണെന്ന് ഉള്ളൊരു കൺസിഡെറേഷൻ അവർക്ക് കൊടുക്കുക അവർക്ക് പൈസ ഇപ്പോൾ ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഗവൺമെൻറ്റായിട്ട് ഏറ്റെടുത്ത് അടക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്ത് കൃഷി കൃഷി വ്യവസായത്തെ മെച്ചപ്പെടുത്തുക കാര്യം സുസ് കുറേ തരത്തിലുള്ള മെഷീൻ നമ്മുടെ ദേശീയ തലത്തിൽ കൊടുക്കുന്നുണ്ട് സുസ്ഥിര കാർഷിക ദേശ് വിഷൻ പിന്നേ ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ദേശീയ സുസ്ഥിര കാർഷിക മിഷൻ രൂപീകരിച്ചിരിക്കുന്നതാണ് പിന്നെ അതിൻ്റെ കീഴിൽ പല സ്കീമുകളുണ്ട് റൈൻഫെഡ് ഏരിയാ ഡവലപ്മെൻറ്റ് ആർ എഫ് എസ് ഡിവിഷൻ ആർ എ ഡി ആർ നടത്തുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് സബ്മിഷൻ ഓൺ അഗ്രിഡ് ഫോറെസ്റ്റ് ട്രീ പരമ്പരാഗത് കൃഷി വികാസ് യോജന അങ്ങനെ പിന്നെ പ്രധാന മന്ത്രി കൃഷി ചിംഞ്ചാ യോജന പിഎംകെഎസ്വൈ എന്ന് പറഞ്ഞിട്ട് ഹർകേ കൊ പാനി പ്രധാനമന്ത്രി കൃഷി സിഞ്ചെയ് യോജനാ എന്നാണ് അത് പറയുന്നത് അതായത് ജല സംരക്ഷണത്തിനും അതിൻ്റെ പരിപാലനത്തിനും ഉയർന്ന മുൻഗണന നൽകാൻ ഇന്ത്യൻ ഗവണ്മെൻറ്റ് പ്രതിഞ്ജാബദ്ധരാണ് ഇതിനായി ഹർ കേദ്കൊ പാനി എന്ന ജലയസേചനത്തിൻ്റെ കവറേജ് വിപുലീകരിരിക്കുന്നതിനും ജല ഉപയോഗ കാര്യക്ഷമത മെച്ചപ്പടുത്തുന്നതിനും ഒരു തുള്ളിക്ക് കൂടുതൽ വിള എന്ന കാഴ്ചയോടെയാണ് പ്രധാനമന്ത്രി കൃഷി സഞ്ജയ് യോജന രൂപീകരിച്ചിട്ടുള്ളത് അതുപൊലെ പരമ്പരാഗത കൃഷി വികാസ് യോജന പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന ഗ്രാമീൺ ഭണ്ഡാരം യോജന കന്നുകാലി ഇൻഷൂറൻസ് പദ്ധതി മത്സ്യ ബന്ദന പരിശീലനവും വിപുലീകരണവും സംബന്ധിച്ച പദ്ധതി മത്സ്യ തൊഴിലാളിയുടെ ക്ഷേമത്തിനായുള്ള ദേശീയ പദ്ധതി മൈക്രോ ഇറിഗേഷൻ ഫണ്ട് തുടങ്ങിയ ഒത്തിരി മേഖലകൾ ഒത്തിരി യോജന ഒത്തിരി സ്കീമുകളുണ്ട് അതിനെ കുറിച്ച് പല കർഷകർക്കും അതിനെ കുറിച്ചുള്ള അറിവുകളോ പ്രോപ്പറായിട്ടുള്ള എജ്യുക്കേഷനോ അതോററ്റീസിൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ളൊരു ഗൈഡൻസൊ ഹെൽപ്പ് കിട്ടുന്നില്ലാത്താണ് കൂടുതലും പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്